നമുക്കറിയാം ഏതൊരു ജോലി സ്ഥലത്തായാലും എല്ലാവർക്കും ജോലിപരമായിട്ടുള്ള പല കാര്യങ്ങളും സംഘർഷങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടുന്ന അനുഭവിക്കേണ്ടി വരും എനിക്കും അങ്ങനെ ചില കുറച്ച് അനുഭവങ്ങളണ്ടായിട്ടുണ്ട് ഒരു അനുഭവം ഞാനൊന്ന് വിവരിക്കുകയാണെങ്കിൽ ഞാനൊരു കമ്പനിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ കുറച്ച് ഹിന്ദിക്കാരുണ്ട് വർക്കേഴ്സായിട്ട് ഇവർക്കൊരു റൂഡ് സ്വഭാവമായിരിക്കും ചിലവർക്ക് എല്ലാവർക്കും ഇല്ല ചിലവർക്ക് അപ്പം അവരോട് ഇടപഴകുമ്പോൾ അവർ നമ്മൾ പറയുന്നത് കേൾക്കാത്തൊക്കെ സാഹചര്യത്തിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ദേഷ്യം വരും പക്ഷെ ദേഷ്യം വന്നാൽ നമ്മളാ ദേഷ്യം പ്രകടിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് ദേഷ്യം വരും പിന്നെ അവർ നമ്മൾ പറയുന്ന പണി ചെയ്യാണ്ടിരിക്കില്ല പക്ഷെ എന്നാലും നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ പരമാവധി സംഘർഷങ്ങൾ അല്ലെങ്കിൽ ദേഷ്യമൊക്കെ വന്ന് കഴിഞ്ഞാൽ ദേഷ്യം മാറ്റി വെച്ച് മര്യാദക്ക് പറയാനാണ് എന്ന് വെച്ചാൽ പേടിപ്പിക്കുന്നൊരു രീതി കുറച്ച് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്ന് വെച്ചാൽ പണി ചെയ്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം സംഭവിക്കുകയെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് ഞാൻ കൂടുതൽ ശ്രമിക്കാറ് അപ്പോൾ അത് ഒരു പരിധിവരെ എൻ്റെ കാര്യത്തിൽ എനിക്കത് യൂസ് ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്